ആ ഹലോ ആ ആരാണ് സംസാരിക്കുന്നത് ആ എൻ്റെ പേര് തോ വി വി തോമസ് വേലയാറ്റൂർകണ്ടത്തിൽ കുറ്റിക്കാണം കുന്നിക്കോട് പി ഒ അറുപത്തൊമ്പത് പതിനഞ്ച് പൂജ്യം എട്ട് അതെ ച് തീർച്ചയായിട്ടും തെങ്ങ് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ഒന്നാമത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൽ തേങ്ങയാണ് തേങ്ങയിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നു അത് കൂടാതെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് ബാക്കി നമ്മൾ തേങ്ങ ഉപയോഗിച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് കൂടുതലും കേരളത്തിലാണ് ഈ തേങ്ങ കറി ഉണ്ടാക്കുന്നത് കൂടുതലും കേട്ടോ അപ്പം അതിൻ്റെ ഗുണം ഏ അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് ആരാണ് പറയാത്തത് വേ അ അടുത്ത കമ്പനിക്കാർ പറയും ഈ വെളിച്ചെണ്ണയ്ക്കാണ് കോളസ്ട്രോൾ കൂടുതലെന്ന് പറയും ചില സൺറൈസ് സൺ ഓയിൽകാർ പറയും അവരുടെയാണ് കുറഞ്ഞത് ഈ വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ അതൊക്കെ കള അതൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല താങ്കൾക്ക് വേറെ എന്താണ് അറിയേണ്ടത് അത് പറയാനാണെങ്കിൽ പിന്നെ സാദാ തെങ്ങ് എട്ട് വർഷത്തെ കാലയളവാണ് നമ്മൾ തെ തെങ്ങിൻ്റെ തൈ വെച്ചുകഴിഞ്ഞാൽ എട്ട് വർഷം കഴിഞ്ഞാലേ കായ്ക്കാൻ തുടങ്ങുള്ളൂ അതിൻ്റെ ഏരിയ അനുസരിച്ചാണ് അത് അത് ചൂട് ചൂടിലൊന്നും പാടില്ല നല്ല സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ എട്ട് വർഷത്തിനകം കായ്ക്കും അല്ലാതെ രണ്ടര വർഷം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് ഹൈബ്രിഡ് വാല ഹൈ ഹൈബ്രിഡ് തെങ്ങുകൾ അത് നമുക്ക് വെച്ചാൽ മൂന്നാം വർഷം കായ പറിക്കാം അപ്പോൾ താങ്കൾക്ക് ബാക്കി തെങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാം തെങ്ങിൻ്റെ തടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തെങ്ങിൻ്റെ ഓല പണ്ടൊക്കെ കാലങ്ങളിൽ നമ്മുടെ നിങ്ങളുടെയും ഞങ്ങളുടെയും വീട്ടിൽ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പുര മേയാനുപയോഗിച്ചിരുന്ന ഓലയാണ് പക്ഷേ നിങ്ങളുടെ വീട് എനിക്ക് തോന്നുന്നത് ഓട് ഇട്ടതായിരുന്നു പണ്ടുമുതലേ എന്ന് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ ഓല ആയിരുന്നു ഇവിടെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം നമുക്ക് തീ എരിക്കാനും അതിനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് അപ്പോൾ യാതൊരു സാധനം പോലും അതിന് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം പിന്നെ ഇതിൻ്റെ അസുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മണ്ടരി എന്ന് പറഞ്ഞ അസുഖമുണ്ട് പിന്നെ ചെല്ലി കുത്തിൻ്റെ അസുഖമുണ്ട് ഇതൊക്കെ മെയിൻ ആയിട്ട് ഹൈബ്രിഡിൻറെ അകത്താണ് വരുന്നത് നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് ഇന്ന് തെങ്ങ് ഇത് നാലഞ്ചെണ്ണം പോയതെല്ലാം ചെല്ലി കുത്തി പോയതാണ് ചെല്ലുമീ ചെല്ലി മീൻസ് പുഴു ആണേ അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ കണ്ട് നോക്കി മരുന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെല്ലിയെ മാറ്റി എടുക്കാൻ പറ്റും അതിനൊക്കെ മാർഗ്ഗം ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തണം അത് തെങ്ങിന് ഇപ്പം ഇതിൻ്റെ പുഴുവിൻ്റെയോ ചെല്ലിയുടെയോ കുത്തലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഈ പള്ളിയിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് തറയിൽ വീഴാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ചെല്ലി കുത്തി പോയല്ലോ അതിന് ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ കണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാലേ നമുക്ക് മരുന്ന് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തേങ്ങയ്ക്ക് ഈ പറഞ്ഞത് പോലെ തേങ്ങയുടെ റേറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് ഏകദേശം മുപ്പത് രൂപ വിലയേ വിലയുണ്ട് കേട്ടോ അത്രയൊക്കെയേ ഉള്ളൂ പിൻ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ കിലോ ഇരുനൂറ് രൂപ വിലയാണ് ഇരുനൂറ് ഇരുനൂറ്റി പത്ത് ഒക്കെയാണ്